ഹൽ ഹലോ അതെ അതെ കിലോ ഇപ്പോൾ നാൽപത്തഞ്ച് ആണ് പിന്നെ അടുത്ത ഹലോ കേൾക്കുന്നില്ലേ ആ ഇന്ന് ഇന്ന് നാളെയും ഒക്കെ നാൽപത്തഞ്ച് ആയിരിക്കും ഇവിടെ ശനിയും അതുപോലെ ബുധനാഴ്ചയും ആണ് ഓഫർ വരുന്നത് അപ്പോൾ അഞ്ച് രൂപ ഉള്ളിക്ക് അഞ്ച് അങ്ങനെ ഓരോന്നിനും പച്ചക്കറികൾക്കൊക്കെ രണ്ട് അഞ്ച് അങ്ങനെയേ വരുന്നുള്ളൂ അല്ലാത്ത ദിവസം ഒക്കെ പുറമെ ഉള്ള റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെയും നാൽപത്തഞ്ച് പിന്നെ ഉള്ളിക്ക് നൂറ് അങ്ങനെ ഒക്കെയാണ് ഇപ്പം കൊടുക്കുന്നത് മ് അതുപോലെ പിന്നെ ഫർണിച്ചർ ഉണ്ട് ഇവിടെ അതുപോലെ പാത്രങ്ങൾ അതൊക്കെ ഉണ്ട് അതിനൊക്കെ ഓഫർ ഉണ്ടാവും അന്ന് പിന്നെ നിങ്ങൾ എന്ന് വരും ആ നിങ്ങൾ അപ്പോൾ അന്ന് വരുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ ശനിയും ബുധനും ദിവസം നല്ല തിരക്കായിരിക്കും ഇവിടെ അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നാൽ സാധനം കിട്ടും അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ തീർന്ന് പോകും നിങ്ങൾ പെട്ടെന്ന് വരുവാണെങ്കിൽ കിട്ടും

ആ ആ അതൊക്കെ ഉണ്ട് അതൊരു സെക്ഷൻ ആയിട്ട് ഉണ്ട് ആ അതിന് ഇപ്പോൾ ഒരു പത്തിൻ്റെ ഉണ്ട് കൂടിയതുണ്ട് തുടക്കം പത്താണ് ആ അപ്പോൾ അതി അതിലൊക്ക ഓഫർ വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ ഓഫർ വരുന്നുണ്ട് പിന്നെ അതുപോലെ ആ അപ്പോൾ അന്ന് വന്നാൽ മതി നല്ല വില കുറഞ്ഞ് കിട്ടും എല്ലാ സാധനത്തിനും ഓഫർ ഉണ്ട് ഇവിടെ ഓരോ സെക്ഷൻ ആയിട്ടാണ് ആ ഓരോ ഫ്ലോറിൽ ഓരോ സാധനങ്ങൾ ആയിട്ടാണ് വീട്ടിൽ വീട്ടിൽ ഉപയോ ഉപയോഗിക്കുന്ന എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ മോപ്പ് അത് ചൂലിന് ഒക്കെ നല്ല റേറ്റ് കുറയും അന്ന് അമ്പത് രൂപ ഒക്കെ ഉള്ളൂ ശനിയും ഞായറും ദിവസം നിങ്ങൾ വരുവാണെങ്കിൽ കാർഡ് ഉണ്ടെങ്കിൽ കാ ഇവിടുത്തെ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് വരണം അല്ലെങ്കിൽ പുതിയ കാർഡ് വന്നിട്ട് എടുക്കണം എന്നാലേ ഓഫറിൽ കിട്ടുള്ളൂ ഒരു പിന്നെ ഒരു കാർഡിൽ ഒരാൾക്കേ ഓഫർ ഉണ്ടാവുള്ളൂ ഒരു സാധനത്തിന് മാത്രം ഇപ്പം നിങ്ങൾ ഒരു ചൂൽ എട് ആ ഒരു ചൂൽ എടുക്കുവാണെങ്കിൽ ഒരു കാർഡിൽ അതിന് മാത്രമേ ഓഫർ കിട്ടൂ ര വേറെ ഒന്നും കൂടി എടുക്കുവാണെങ്കിൽ അതിന് ഓഫർ കിട്ടില്ല പിന്നെ എല്ലാ ദിവസവും കൊടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുക ഓഫർ കിട്ടണമെങ്കിൽ ആ പിന്നെ ആ ഉണ്ടാവും അത് അന്ന് വരുവാണെങ്കിൽ അന്ന് കഴിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ അത് ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾ ഓരോ ആഴ്ചയിൽ ഒരോ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില സാധനം കിട്ടില്ല അതുകൊണ്ട് നോക്കിയിട്ട് വന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് മോഡൽ വേണ്ടത് അത് അത് ഏതാണെന്ന് പറഞ്ഞാൽ പിറ്റത്തെ ആഴ്ച പോകുമ്പം എടുക്കാം കൊണ്ടുവരാൻ പറ്റും ഡെലിവറി ചാർജ് ഒന്നും വേണ്ട ഡെലിവറി ചാർജ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുന്ന് കൊടുക്കുന്ന റേറ്റിന് തന്നെയായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത് ഡെലിവറി ചാർജ് ആയിട്ട് വേറെ ഒന്നും ആക്കുന്നില്ല അതിൻ്റെ റേറ്റ് എന്താണോ ആ ആ അതിന് ആ അതിന് എക്സ്ട്രാ എടുക്കേണ്ടി വരും ഡെലിവറി ചാർജ് നിങ്ങൾ തന്നെ നോക്കണം ഞങ്ങൾ വീട്ടിൽ എത്തിച്ച് തരുന്നില്ല

ആ നിങ്ങൾ തന്നെ കൊണ്ടര കൊണ്ടുപോകേണ്ടി വരും നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും വണ്ടിയൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനേ പറ്റുള്ളൂ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നില്ല ഞങ്ങൾ ആ ഒരു സർവീസ് കൊടുക്കുന്നില്ല അത് ആ പദ്ധതി നമ്മൾ വരുത്തുന്നുണ്ട് ഇത് ഇപ്പോൾ ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഡെലിവറി ഒക്കെ നോക്കാം ആ പെട്ടെന്ന് ഒന്നും ഉണ്ടാവില്ല മ് അതെ ഇപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു മാസം ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് ഓരോന്ന് വരുത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നില്ല ആ ആ മ് എന്നാൽ നിങ്ങൾ ആ വന്ന് നോക്കിയാൽ മതി ശനിയാഴ്ച വന്ന് നോക്കിയാൽ മതി മ് മ് എന്നാൽ ഓക്കെ